മേ ഐ ഗെറ്റ് ഇൻ മാം താങ്ക് യൂ മാം എൻ്റെ പേര് ആര്യ ഞാൻ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിനു വേണ്ടി വന്നതാണ് എൻ്റെ മകൾക്ക് എൽ കെ ജിക്ക് ഒരു അഡ്മിഷനു വേണ്ടി വന്നതാണ് അപ്പോൾ ചേർക്കണതിന് മുന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു പോവാൻ വേണ്ടിയിട്ട് വന്നതാണ് കുട്ടിയുടെ പേര് ശ്രീബാല ഇപ്പോൾ കഴിഞ്ഞ മാസം നാലായി നാലു തികഞ്ഞു ആ അതെയതെ

ഓക്കെ ഓക്കെ ഓക്കെ മേം എൻ്റെ എൻ്റെ മൂത്ത എൻ്റെ മൂത്ത കുട്ടിയും ഇവിടെ തന്നെയാണ് പഠിക്കണത് രണ്ടാം ക്ലാസിൽ മീനാക്ഷി അപ്പോൾ അനിയത്തി ഇവളുടെ അനിയത്തി ആണെങ്കിൽ തന്നെ അവൾ സ്കൂളിൽ പോകണത് കണ്ടിട്ട് എപ്പോഴും സ്കൂളിൽ ചേരണം ചേരണം എന്ന് പറഞ്ഞു ഇരിക്കുകയായിരുന്നു ചെറുപ്പം തൊട്ടേ അപ്പോൾ ഇപ്പോഴല്ലേ ചേർക്കാൻ പറ്റുള്ളൂ ആ അതെയതെ അപ്പോൾ അവൾ പറഞ്ഞത് കേട്ടിട്ട് തന്നെയാണ് അനിയത്തിയിനേയും ഇവിടെ ചേർത്ത് ചേർത്തത് ഇപ്പം അവിടെ മീനാക്ഷിക്ക് ആണെങ്കിൽ ഡ്രോയിങ്ങ് ഡ്രോയിങ്ങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഡ്രോയിങ്ങും ബാക്കിയുള്ള ആർട്സും കുട്ടികളുടെ എല്ലാ കലകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെറിയ ആളെയും ഇവിടെത്തന്നെ ചേർക്കാം എന്ന് വിചാരിച്ചത്

ആ അതെ അവൾക്ക് അവൾക്ക് പാട്ടുപാടാനാണ് ഇഷ്ടം അതെയല്ലേ ചെറിയ ആളായതുകൊണ്ട് കുറച്ച് കുറുമ്പുണ്ട് അപ്പോൾ ഓ അതെയതെ അപ്പോൾ ഇനിയെന്നാണ് വരേണ്ടത് അവളെ അവളേയും കൊണ്ട് എന്താണ് എന്നാണ് വരേണ്ടത് ഓക്കെ ഓക്കെ എന്തെങ്കിലും എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി ആണോ ഓക്കേ പിന്നെ ഫോട്ടോ വേണൊ മാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഒരു ഫോട്ടോ കയ്യിൽ വെക്കാമല്ലേ ഓക്കെ കുട്ടിയിനെ കൊണ്ടുവരണം എന്ന് നിർബന്ധമുണ്ടോ

ഓക്കെ ഓക്കെ അതെയതെ അത് തീർച്ചയായും ഓക്കെ തീർച്ചയായും അതെയതെ ഓക്കെ ഓക്കേ മാം ഓക്കെ ശരിയെന്നാൽ മാം ഞാൻ എന്നാൽ ഇരുപത്തിനാലാം തീയ്യതി വരാം ഓക്കെ താങ്ക് യൂ മാം